സൃഷ്ടിപരവും സ്വാധീന ശക്തിയുള്ളതുമായ ഒരു പരസ്യമാണ് തേയിലയെ കുറിച്ചുള്ള പരസ്യം അത് നമ്മുടെ സൃഷ്ടിയിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന ഒരു ഉല്പ്പന്നമാണ് തേയില എന്ന് പറയുന്നത് അത് പ്രകൃതിയിൽ നിന്നും ദൈവം നമുക്ക് നല്കിയ ഒരു സ്വാദ് സ്വാധീന ശക്തിയുള്ള ഒരു ഉൽപ്പന്നം തന്നെയാണ് അതിനെക്കുറിച്ച് ഉള്ള പരസ്യവും അതുപോലെ തന്നെ ജനങ്ങളിലേക്ക് വളരെ സ്വാധീനിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്ത് ഒരുപാട് പരസ്യ രീതികളാണ് ആൾക്കാരിലേക്ക് സമൂഹത്തിലൂടെ പല രീ മാധ്യമങ്ങളിലൂടെയായിട്ടും എത്തിക്കുന്നത് മാധ്യമങ്ങളിലൂടെ മാത്രമല്ല മൈക്കുകളിലൂടെയും നോട്ടീസ് തുടങ്ങിയ രീതിയിലൂടെയും ബോധവൽക്കരണങ്ങളിലൂടെയും ഒക്കെ നിരവധി പരസ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാറുണ്ട് അതിൽ അൾക്കാരിലേക്ക് കൂടുതലായി എത്തിക്കാൻ കഴിയുന്ന പരസ്യങ്ങളെന്നു പറയുന്നത് നമ്മുടെ മാധ്യമങ്ങളിലൂടെ ഉള്ളത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ജനങ്ങൾ ഉപയോഗിച്ച് വരുന്ന ഒരു സാധനമാണ് മൊബൈലെന്ന് പറയുന്നത് മൊബൈലിലൂടെയുള്ള പരസ്യങ്ങൾ ജനങ്ങളെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട് കൂടാതെ ടി വി പോലുള്ള മാധ്യമങ്ങളും ജനങ്ങളിലേക്ക് പരസ്യങ്ങൾ ഒത്തിരി എത്തിക്കുന്നതില് വളരെ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്